അതായത് മതപരമായ ഉത്സവങ്ങളിൽ കൂടുതലായിട്ട് നമ്മള് എന്താ പറയുക നമ്മളീ ഹിന്ദുക്കളായത് കൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ആചാരങ്ങളിലൊക്കെ നമ്മള് സാധരണ അമ്പലങ്ങളിലായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മള് സാധാരണ കണ്ട് വരുന്നത് എന്താന്ന് വച്ച് കഴിഞ്ഞാ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കാരണം അമ്പലത്തില് മത്സ്യമാംസാദികളൊന്നും പ്രവേശിപ്പിക്കരുതെന്നാണ് നമ്മള് സാധാരണ കണ്ട് വന്നിട്ടുള്ളത് അത് എന്താ പറയുക ഒരു ശു മറ്റ് എന്താ പറയ്യാ ശുദ്ധിയും വൃത്തിയൊക്കെയായിട്ടാണ് നമ്മള് അമ്പലം കൊണ്ട് നടക്കുന്നതെന്നാണ് നമ്മള് കേട്ടിട്ടുള്ള അപ്പോൾ അമ്പലത്തില് കൂടുതലായിട്ട് നോൺ വെജ് അതായത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളായ ഭക്ഷണങ്ങള് മൊത്തം വെജിറ്റേറിയൻ തന്നെയാണ് നമ്മള് യൂസ് ചെയ്യാറ് അതെ സ്ഥാനത്ത് ഈ ക്രിസ്ത്യാനികളും മുസ്ലീമുകളൊക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ അവിടെ കൊണ്ട് ചെല്ലുന്നതൊക്കെ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പള്ളീല് നോൺ വെജ് അതായത് ബീഫ് ചിക്കൻ അങ്ങനുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ട് വരുന്നത് നമ്മള് കണ്ടിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല എന്നാ മുസ്ലിംസിന് പന്നി ഹറാമാണ് പിന്നെ അങ്ങനെ പട്ടി അങ്ങനെയുള്ള മൃഗങ്ങളൊക്ക എന്താ പറയ്യാ അങ്ങനെ ചില ആചാരങ്ങളൊക്കെണ്ട് അവർക്ക് അതെക്കെ ഹറാമായിട്ടാണ് നമ്മള് പഴക്കം ചെന്ന ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കില്ല അത്തരം ആചാരങ്ങളാണ് നമ്മള് കണ്ടിട്ടുള്ളത്